നാട്ടിൽ മുടി അല്ലെങ്കിൽ ചർമ്മം ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന പല ആളുകളെയും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ ഇതിനായി പല രീതിയിലുള്ള പല തരത്തിലുള്ള മരുന്നുകളും അതിൻ്റെ റെമിഡീസുകളെല്ലാം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സംഭവം ഇന്നത്തെ സമൂഹത്തിൻ്റെ വലിയൊരു നെഗറ്റീവ് വശം എന്നുള്ളത് മുടിയിൽ അല്ലെങ്കിൽ ചർമ്മത്തിലാണ് കാര്യം ഇരിക്കുന്നത് അല്ലെങ്കിൽ ചർമ്മത്തിന് എന്ത് ഭംഗിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുടിക്ക് നീളമുണ്ടെങ്കിൽ മുടിക്ക് ഭംഗിയുണ്ടെങ്കിൽ അവനിക്ക് എവിടെയും എത്തിപ്പെടാം അവന് സമൂഹത്തിൽ വലിയ വിലയുണ്ട് എന്ന ഒരു ചിന്താഗതിയിലൂടെയാണ് ഇന്നത്തെ സമൂഹം കടന്നു പോകുന്നത് ഇന്നത്തെ സമൂഹത്തിൽ ധാരാളം ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന പച്ചമരുന്നുകൾ പച്ച മരുന്നുകൾ അങ്ങനെ തുടങ്ങിയ വ്യത്യസ്തമായ മരുന്നുകളും വൈദ്യങ്ങളുമാണ് സമൂഹത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് ധാരാളം ഫാർമസികളിലും മെഡിസിനുകളൊക്കെ ലഭ്യമാണ് നല്ല രീതിയിലുള്ള മുടി അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ചർമ്മം ചർമ്മത്തിൻ്റെ ഭംഗി കൂട്ടാനും അതിന് മോടി കൂട്ടാനും തുടങ്ങിയ പല ആവശ്യങ്ങൾക്കും ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ വളരെ സുലഭമായി ലഭ്യമാണ് ഇതെല്ലാം ചർമ്മത്തിൻ്റെയും മുടിയുടെയും കാര്യങ്ങൾ എളുപ്പമാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നു ഇന്നത്തെ സമൂഹം മുടി അല്ലെങ്കിൽ ചർമ്മം ഇതിന് വളരെ വലിയ പ്രാധാന്യം നൽകുന്ന സമൂഹമാണ് ഈ സമൂഹത്തിൽ ജീവിക്കണമങ്കിൽ നല്ല രീതിയിലുള്ള അധ്വാനവും അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സാമ്പത്തിക ശേഷിയും അനിവാര്യമാണ് ഈ സമൂഹത്തിൽ മുടി അല്ലെങ്കിൽ ചർമത്തിന് പ്രാധാന്യം നൽകാത്തവർ അവർ ബുദ്ധിയില്ലാത്തവർ അല്ലെങ്കിൽ അവരൊന്നിനും കൊള്ളാത്തവരാണെന്ന ചിന്താഗതിയാണുള്ളത്